എനിക്ക് സമയമില്ലെങ്കിൽ ഞാന് ഉണ്ടാക്കാറ് ബ്രഡ് വെച്ചിട്ട് ഒരു സാന്ഡ് വിച്ച് പോലെ നമുക്ക് മുട്ട പൊരിച്ചത് സാന്ഡ് വിച്ച് പോലെ ഉണ്ടാക്കി എടുക്കാന് സുഖമാണ് ആ സമയത്ത് പിന്നെ അതേപോലെ ലെമണ് റൈസും ഞാന് സമയമില്ലാത്തപ്പോൾ ഉണ്ടാക്കാറുണ്ട് കാരണം കറിയുണ്ടാക്കി നമുക്ക് വെറുതെ സമയം കളയണ്ട കാര്യമില്ല ചോറ് ജസ്റ്റ് നമുക്ക് മസാലകളിട്ട് തക്കാളിയും ഉള്ളിയും ഇട്ട് അതിലേക്ക് നാരങ്ങ പിഴി പിഴിഞ്ഞതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുത്താല് മാത്രം മതി ലെമണ് റൈസ് എഗ്ഗ് റൈസ് അതേപോലെ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തിൽ ടേസ്റ്റിയായിട്ടുള്ള ചോറ് ഉണ്ടാക്കിയെടുക്കാന് പറ്റും അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാനും ഒരുപാട് കറിയും കറിപാത്രങ്ങളോ അങ്ങനെ കവറുകള് ഒന്നും ആവശ്യമില്ല അതൊരു ചോറ് പോലെ ബിരിയാണിയൊക്കെ പോലെ നമുക്ക് കൊണ്ട് പോകാനുള്ള ടേസ്റ്റും ഉണ്ട് അതിന് നമുക്ക് കഴിക്കാനും സുഖമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറി ഉണ്ടാക്കാന് വേറെ സമയം പോകില്ല ഉപ്പേരി ഉണ്ടാക്കാന് വേറെ സമയം പോണിള്ള അതുപോലെ തന്നെ ചേരുവകളും കുറച്ചേ ഉള്ളൂ അതേപോലെ നമുക്ക് ചെറിയ ചെറിയ വൈകുന്നേരം കടികള് ഒക്കെയാണെന്നുണ്ടെങ്കില് ബ്രഡും കോഴിമുട്ടയും വെച്ചിട്ട് സാന്ഡ് വിച്ച് ഉണ്ടാക്കാം അതേപോലെ കുഞ്ഞു കുഞ്ഞു ഓംലറ്റുകള് മാത്രം ഉണ്ടാക്കി കഴിക്കാം അങ്ങനെയുള്ള ഭക്ഷണസാധനങ്ങളാണ് കൂടുതലും ഞാൻ സമയം ഇല്ലാത്തപ്പോഴും അതേപോലെ നമുക്ക് ചേരുവകള് കുറവുള്ളപ്പോഴുണ്ടാക്കാറ് അങ്ങനെയൊക്കെയാണ് അതേപോലെ നമുക്ക് റേഷനരിയില് നമുക്ക് മന്തി ഉണ്ടാക്കാന് പറ്റും അതും കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ചിക്കന് മാത്രം ഉണ്ടായാല് മതി അതേപോലെതന്നെ നമുക്ക് കഞ്ഞിയുണ്ടാക്കാം കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരുപാട് ചേരുവകളുടെ ആവശ്യം ഒന്നുമില്ല ചോറ് നല്ലവണ്ണം വെന്താല് മാത്രം മതി പിന്നെ അതിലേക്കു പയര് ഇടണമെങ്കില് പയറും ഇടാം കഞ്ഞിയും പയറും നല്ല ടേസ്റ്റാണ് അതേപോലെ അതിന്റെ കൂടെ പപ്പടമോ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കില് അത് തന്നെ മതി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അതേപോലെ ഞാനുണ്ടാക്കാറുള്ളത് സൂപ്പുകൾ ഉണ്ടാക്കാറുണ്ട് നമുക്ക് ഇപ്പോൾ ചേരുവകളൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കാൻ പ്രശ്നം ആണെന്നുണ്ടെങ്കില് നമുക്ക് ചൂട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന പത് ചെറിയ പായ്ക്കറ്റിന്റെ ഉണ്ടാകും അത് പൊട്ടിക്കുക എന്നിട്ട് നമുക്ക് സൂപ്പുകളും അതേപോലെ ഉണ്ടാക്കാന് പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് വയര് ഫില് ആകുന്ന രീതിക്കുള്ള സൂപ്പുകളാണതും